എന്താ നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് കിട്ടുക എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കു കിട്ടുന്ന വിജയങ്ങളൊക്കെ ആഘോഷിക്കപ്പെടുമ്പോഴാണ് നമ്മളെന്തു ചെയ്യുന്നത് പൂര്ണ്ണമായിട്ടും ആ വിജയത്തിന്റെ ഒരു ടോപ്പ് ലെവലിലെത്തുന്നത് അപ്പെന്താ ചോദിച്ചെങ്കിൽ നമ്മുടെ വിജയങ്ങൾ പൂര്ണ്ണമായിട്ടും ആഘോഷിക്കപ്പെടണം അതു പോലെ നമ്മുടെ വിജയങ്ങളില് നമ്മുടെ കൂടെ ആഘോഷിക്കാന് നമ്മുടെ വേണ്ടപ്പെട്ടവർ വേണം നമ്മളുടെ വിജയങ്ങൾ മറ്റുള്ളവർ കാണണം എന്നാലെ നമുക്കെന്തുണ്ടാകുകയുള്ളു നമ്മുടെ വിജയത്തിലൊരു പൂര്ണ്ണത ഉണ്ടാകുള്ളു അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നക് നമ്മടത നാട്ടിൽ കാലം പുരോഗതി സംഭവിക്കുന്നതോടു കൂടിയിട്ടു തന്നെ ആള്ക്കാർ എന്തു ചെയ്യുന്നുണ്ട് ഈ ആഘോഷങ്ങളിലൊക്കെ ഓ ഭയങ്കര താത്പര്യം കാണിക്കുന്നു പ്രത്യേകിച്ചും ഈയൊരു കൊറോണാ വന്നതിനു ശേഷമുള്ള കാലഘട്ടത്തിനു കാരണം നമുക്കു ജീവതത്തിൽ ആ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വര്ഷം രണ്ടു വര്ഷ കാലഘട്ടം നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ലാ തന്നെ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട് ആള്ക്കാർക്ക് മനസ്സിലായി ഈ ജീവിതത്തിൽ എ എങ് പെട്ടെന്നു നമുക്കെന്തു ചെയ്യാം നഷ്ടപ്പെടാം അല്ലെങ്കില് ജീവിതം നമുക്കു പെട്ടെന്നു നഷ്ടപ്പെടാം ഒരു സുലഭത്തിൽ നമുക്ക് നഷ്ടപ്പെടാം അപ്പോൾ നമുക്ക് ആഘോഷിക്കാന് കിട്ടേണ്ട അവസരങ്ങൾ നമ്മളൊരിക്കലുംഎന്തു ചെയ്യാന് പാടില്ല അത് നമ്മൾ കളയാന് പാടില്ല ഇപ്പോൾ ഞാനെന്റെ ജന്മദിനം അഘോഷിക്കുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ ഒത്തൊരു കേക്ക് വാങ്ങിക്കും നമ്മളെന്തു ചെയ്യും അതു കട്ട് ചെയ്യും അതു പരസ്പരം ഷെയർ ചെയ്യും പിന്നെ വീട്ടിൽ ഭക്ഷണങ്ങൾ ബിരിയാണി മന്തി പോലുള്ള ഭഷ്ണങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കും അതെല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണ് നമ്മളെന്തു ചെയ്യുന്നത് ജന്മദിനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്നെയും വിവാഹങ്ങളിൽ നിന്നൊക്കെ പറയുമ്പോൾ എന്തു ചോദിച്ചാൽ അതൊരു വലിയ ഒരു ജന കൂട്ടം മൂളുന്ന ഒരു ആഘോഷം തന്നെയാണ് അതിലേയ് ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന വിവാഹാഘോഷങ്ങളുണ്ട് അതു നമ്മളെ സാമ്പത്തിക നിലയെ സമ്മന്തിച്ചിരിക്കും എത്രത്തോളം വലുതാക്കാമെന്നുള്ളതും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള അമ്പാനീന്റെ മകാ മകന്റെ കല്യണം കഴിഞ്ഞു അതെന്നു ആയിരം കോടിയാണതിൽ ഇന്വെസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ആ ആയിരം കോടീന്റെ ഒരു കല്ല്യാണമെന്നു പറയുമ്പം തന്നെ നമുക്കറിയാം എത്രത്തോളമാണാ ആ ഒരു എന്താ പ്രോഗ്രാമവർ ആഘോഷിച്ചതെന്നുള്ളത് അപ്പോൾ ഓരോ വ്യക്തിക്കും എത്ര സാമ്പത്തിക നില ഉണ്ട് എന്നതിനെ അനുസരിച്ചിരിക്കും അവർ എന്താ അവരുടെ ആഘോഷങ്ങളെ ഡിപ്പെൻ്റ് ചെയ്ത് ഇപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ ചെറിയ പരിപാടികളാകുമ്പം നമ്മൾ ഭക്ഷണം ഇതു തന്നെയാണ് നമ്മളെ ആഘോഷ പാരിപാടിയിലെ പ്രധാനപ്പെട്ടുള്ള പരിപാടികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ചോദിച്ചാൽ നമ്മളെ കൂട്ടുകാര്ക്ക് നമ്മളെന്താ ചെയ്യുക ഒരു ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്ക് അല്ലെ നാട്ടുകാർക്ക് ഒരു ഭക്ഷണം നമ്മുടെ സന്തോഷത്തിലും അവരെയും പങ്കു ചേര്ക്കുക എന്നുള്ളതു തന്നെയാണ് ഇതിലെ വലിയ ഒരു നേട്ടമെന്നു പറയണത് അപ്പോൾ ആ എനിക്കെല്ലാവരോടും പറയുക ഉള്ളതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾ നമുക്കെടുക്കാനുള്ള നമ്മളുടെ ഓരോ അവസരങ്ങളും നമ്മളത് മുതലെടുക്കണമെന്നും അതും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളുടെ സാമ്പത്തികം മാനിച്ചുകൊണ്ട് നമുക്ക് കഴിയണ രീതിയിൽ നമ്മളെന്തു ചെയ്യണം അതൊക്കെ അടിപൊളിയായി നടത്തണം എന്നു തന്നെയാണ് എനിക്കു പറയാനുള്ളത്